ഇന്നത്തെ കാലത്ത് ഫോൺ ഉപയോഗിക്കാത്ത ആൾക്കാർ കുറവായിരിക്കും ഫോണിൽ തന്നെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും എല്ലാവരുടെ കയ്യിലും ഒരു സ്മാർട്ട് ഫോണുണ്ടാവും വലിയ പ്രായം ചെന്ന അപ്പാപ്പനും അമ്മാമ്മമാരുടെയും ഒക്കെ കയ്യിൽ മാത്രമേ ഇപ്പോൾ സ്മാർട്ട് ഫോൺ അല്ലാത്ത ഫോണുകൾ യൂസ് ചെയ്യുന്നുള്ളൂ നമ്മുടെ ഫോണിൽ എന്തോരം അപ്പുകളാണ് നമ്മൾ കയറ്റിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ആപ്പ് ഒന്ന് ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് ഫേസ്ബുക്ക് അതുമാത്രമല്ല ഗൂഗിൾ പേ ടിക്ടോക് ടിക്ടോക്കോക്കെ ആൾക്കാർക്ക് കുറവായിരിക്കും ഇപ്പോൾ ഇന്ത്യയിൽ നിരോധിച്ചതു കൊണ്ട് ടിക്ടോക്കങ്ങനെ ആൾക്കാരുപയോഗിക്കുന്നില്ല പക്ഷേ ഈ പറഞ്ഞ നാല് ആപ്പുകളും നമ്മുടെ ഫോണിൽ നിർബന്ധമായും ഉണ്ടായിരിക്കുന്ന ആപ്പുകളാണ് വാട്സ്ആപ്പ് ഒക്കെ ഉപയോഗിക്കാത്ത ആൾക്കാർ ആരും ഇല്ല ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിലും ഫേസ്ബുക്ക് ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിലും ഇനി അഥവാ ഗൂഗിൾ പേ ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും വാട്സ്ആപ്പ് നിർബന്ധമായും ഉണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സ്ഥാനമാണ് വാട്സസ്ആപ്പ് ഉപയോഗിക്കുക വാട്സ്ആപ്പ് നടത്തുന്നത് നിർവഹിക്കുന്നത് വാട്സ്ആപ്പ് മാത്രമല്ല ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് എല്ലാം നമ്മളുപയോഗിക്കുന്നതാണ് അപ്പോൾ ടെക്നോളജി ആയിട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ ഇതുവഴി നമ്മളടുത്തിരിക്കുന്നു നമ്മുടെ അകന്ന ബന്ധുക്കളുമായി നമ്മളെപ്പോഴും അടുത്തിരിക്കുന്നു നമുക്ക് വേണ്ട ഇൻഫർമേഷൻ അതിൽ നിന്ന് കിട്ടുന്നു കുട്ടികളാണെങ്കിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ അതിൽ നിന്നു കിട്ടുന്നു എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട് പറഞ്ഞാലും പറഞ്ഞാലും തീരത്തില്ല പഠിക്കുന്ന കുട്ടികളാണെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഒരു സംശയം വന്നു നമ്മളാദ്യം എന്താ ചെയ്യുക പണ്ടത്തെ കാലത്തൊക്കെയാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഡിക്ഷണറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോളേജ് ബുക്ക് തപ്പിപ്പിടിച്ച് മറിച്ച് ഓ ഒന്നും പറയണ്ട പക്ഷേ ഇന്നത്തെ കാലത്തോ ജസ്റ്റ് ഫോണെടുത്ത് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തു കൊടുത്താൽ മാത്രം മതി നമുക്കാവശ്യമുള്ള ഈ സൂര്യനു താഴെ ഈ സൂര്യനു മുകളിൽ പ്രപഞ്ചത്തിൽ അങ്ങറ്റത്തു വരെയുള്ള എല്ലാ സംഭവങ്ങളും ഇതിനകത്തുന്നു നമുക്ക് കിട്ടും ഇന്നത്തെ കാലത്ത് കുട്ടികൾ കൂടുതലും വാട്സ്ആപ്പ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും അതുമാത്രമല്ല നമ്മൾ ഗൂഗിൾ പേ പിന്നെ കുറച്ചും കൂടി ബ്യുട്ടി കോൺഷ്യസ് ആയ ആൾക്കാരാണെങ്കിൽ പർപ്പിൾ അല്ലെങ്കിൽ നൈക്ക പിന്നെ ആ പറയാൻ വിട്ടുപോയി നമ്മുടെ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ ഷോപ്സി അങ്ങനെ എണ്ണിയാൽ എണ്ണിയാലൊതുങ്ങാത്ത ഒരുപാടുണ്ട് പക്ഷേ ഇതിൽ നിന്നെല്ലാം മെയിനായിട്ടും നമ്മുടെ ജീവിതത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന മൂന്ന് ആപ്പുകളാണ് ഒന്ന് മൂന്നല്ല നാലു മൂന്നാപ്പുകളാണ് ഒന്ന് ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഗൂഗിൾ പേ അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെ നമുക്ക് വർണിച്ചാലും വർണിച്ചാലും നമുക്ക് തീരത്തില്ല തീരത്തില്ല അല്ലേൽ നമുക്കിപ്പോൾ ഒരുപാട് നാളായി നമ്മൾ കാണാത്തൊരു വ്യക്തി നമുക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നു ആ എന്തായാലും നമുക്ക് കാണാൻ പറ്റില്ല ജസ്റ്റ് വാട്സ്ആപ്പ് എടുക്കുക ഹായ് എന്നൊരു മെസ്സേജ് അയക്കുക നമ്മൾ അയക്കാതിരുന്നിട്ട് നമ്മളെ ഒരു മെസ്സേജ് പണ്ടൊക്കെ കത്തിന് വേണ്ടിട്ട് നമ്മൾ കാത്തിരിക്കില്ലേ അതുപോലെ അയക്കാതിരുന്നിട്ട് ഒരു മെസ്സേജ് അവർക്ക് കിട്ടുമ്പോൾ ഓ ഓൻ നമ്മളെ മറന്നില്ലലോ നമ്മളെ ഓർക്കുന്നുണ്ടല്ലോ അങ്ങനെ ഒക്കെ ചിന്തിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ചുണ്ടാകുന്നൊരു സന്തോഷം അല്ലേ അല്ലേ നമ്മുക്കൊരു മെസ്സേജ് ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടുമ്പോൾ നമുക്ക് എന്തോരം സന്തോഷം ഉണ്ടാവും അത് മാത്രമല്ല ഇപ്പം എല്ലാവരും ഇപ്പം വീട്ടമ്മമാരാണെങ്കിലും ജോലിക്കു പോകുന്ന അല്ലെങ്കിൽ പോകാത്ത ആൾക്കാരാണെങ്കിലും സ്മാർട്ട് ചെറിയ എന്തെങ്കിലും സ്മാൾ ബിസിനസ് എല്ലാം ഈ ടെക്നോളജി ഈ ഫോണിൽ ആപ്പ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേൽ ഇപ്പോൾ എന്തെങ്കിലുമൊരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നേരെ വാട്സ്ആപ്പിൽ ഇട്ട് ഫോട്ടോ ഇട്ട് എല്ലാവരും കണ്ടു ഓർഡറ് എടുത്തു നമുക്ക് അത്യാവശ്യം നമ്മുടെ വട്ടച്ചെലവിനുള്ള അതായത് നമ്മുടെ പോക്കറ്റ് മണി നമുക്കിതിൽ നിന്ന് കിട്ടും ഇൻസ്റ്റഗ്രമിലൂടെ സ്മാൾ ബിസിനസ് ചെയ്യുന്ന എത്ര പേരുണ്ട് ഫേസ്ബുക്കിലൂടെ ചെയ്യുന്ന എത്ര പേരുണ്ട് യൂട്യൂബ് വഴി വരുമാനം ഉണ്ടാക്കുന്ന എത്ര പേരുണ്ട് അല്ലേൽ ഇതൊക്കെ നമ്മുടെ ഗുണങ്ങളാണെങ്കിൽ ഇതിനു നേരെ ഓപ്പോസിറ്റുള്ള വശങ്ങളും ഇതിലുണ്ട് ആ ദോഷവശങ്ങളെന്താണെന്നു പറഞ്ഞാലേ ഗുണവശങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തതു പോലെ തന്നെ ദോഷവശങ്ങളും നമുക്ക് പറഞ്ഞാലും പറഞ്ഞാലും പറഞ്ഞാലും തീരത്തില്ല ആദ്യമായിട്ട് നമ്മൾ പറയേണ്ട ദോഷവശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ നമ്മളെ ചൂഷണം ചെയ്യാൻ പറ്റും നമ്മളെ പറ്റിക്കപ്പെടാൻ പറ്റും നമ്മളെ കബളിപ്പിക്കാൻ പറ്റും അത് കറക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു പെൺ കൊച്ചിൻ്റെ പ്രൊഫൈൽ എടുത്ത് അത്യാവശ്യം കോഴിയുള്ള ഒരാണിന് അയച്ചു കൊടുത്ത് ഹായ് ചേട്ടാ സുഖമാണോ അതൊക്കെ തുടങ്ങി അവർ മെല്ലനെ നമ്മുടെ വഴിക്ക് വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പൈസ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും ഹണി ട്രാപ്പ്ന്ന് കേട്ടിട്ടില്ലേ ഇതിൽ വീഴുന്ന ആൾക്കാരും ഉണ്ട് ഇതിലൊന്നും വീഴാതെ പിടിച്ച് നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് പക്ഷേ ഭൂരിഭാഗം പേരും ചതിക്കപ്പെടാൻ ചതിക്കപ്പെടുന്നത് ഈ ഒര ഈ ഒരു ആപ്പ് ദോഷം കൊണ്ട് മാത്രമാണ് അതായത് മറ്റുള്ളവരെ കബളിപ്പിച്ച് പൈസ തട്ടിയെടുക്കുക എന്നുള്ള ഒരു ചിന്തയുള്ള ആൾക്കാർ കൂടുതലും ഇതുപയോഗിക്കുന്നത് അതുമാത്രമല്ല ഇപ്പം കണ്ടില്ലേ പെൺകുട്ടികൾ പ്രണയിച്ച് വശീകരിച്ച് പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച പരിചയമുള്ള ആൾക്കാരുടെ കൂടെ ഇറങ്ങിപ്പോകും എനിക്ക് മനസിലാകാത്തത് ഈ ഒരാഴ്ചയൊക്കെ പരിചയപ്പെട്ട ചാറ്റ് ചെയ്ത ഒരാളുടെ കൂടെ എങ്ങനെ രണ്ട് കുട്ടികളും മൂന്ന് കുട്ടികളും ഒക്കെയുള്ള വീട്ടമ്മമാർ ഇറങ്ങിപ്പോകുന്നത് എന്നുള്ളതാണ് ജീവിതകാലം മുഴുവൻ കൂടെയുള്ള മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് ഒരാഴ്ച പരിചയപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോകാൻ പറ്റുമോ അതാണ് ടെക്നോളജി അതായത് ഈ ആപ്പുകളു നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം ചില്ലറയല്ല അതുപോലെ തന്നെ ഈ ചാരിറ്റിടെ മറവിൽ ഈ ആപ്പുകൾ വഴി എന്തോരം പൈസാ ആൾക്കാർ തട്ടുന്നത് ഏതെങ്കിലും ഒരു കൊച്ചിൻ്റെയോ ആൾക്കാരുടെയോ ഒരു ഫോട്ടോ ഇടും നമ്മളെന്താണ് നമ്മൾ അയ്യോ പാവം എങ്ങനെയെങ്കിലും അവർ രക്ഷപ്പെടട്ടേന്ന് വിചാരിച്ച് നമ്മൾ പൈസ അവരുടെ അക്കൗണ്ടിൽ ഇട്ടു കൊടുക്കും അപ്പോഴോ അത് ചിലപ്പോൾ ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും നല്ല അക്കൗണ്ടും ഉണ്ട് പക്ഷേ മെയിൻലി ഫേക്ക് അക്കൗണ്ടായിരിക്കും പൈസ പോയി നമ്മളിതറിയുന്നില്ലല്ലോ നൂറും പത്തും ഒരായിരം പേര് നൂറു രൂപ വെച്ച് എടുത്താൽ അവർക്കുള്ള പൈസ ആയില്ലേ അർഹതപ്പെട്ട കൈകളിലത് കിട്ടുമോ അതുമില്ല അതുപോലെ തന്നെ ഗൂഗിൾ പേ വഴി നമ്മൾ അറിയാതെ പിൻ നമ്പർ ഷെയർ ചെയ്ത് എന്തോരം പൈസയാണ് ആൾക്കാരുടേം പോയേക്കുന്നത് ഈയിടെ തന്നെ ഒരു ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ പതിനായിരം രൂപ ആൾക്കാർ അടിച്ചെടുത്തു എത്ര സമർത്ഥമായിട്ടാണ് നമ്മുടെ ടെക്നോളജി വഴി ആൾക്കാർ പറ്റിച്ചു കൊണ്ടിരിക്കുന്നത് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര കാര്യങ്ങളുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ആപ്പ് യൂസ് ചെയ്യുന്നതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെ ഒരു കുഴപ്പോം ഇല്ല പക്ഷേ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു ലിമിറ്റ് വെക്കണം നമ്മുടെ ജീവിതത്തെ ഹനിക്കുന്ന അതായത് നമ്മുടെ കുടുംബജീവിതത്തിനെ ബാധിക്കുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഇതുവഴി നമുക്കുണ്ടാകരുത്